ആ ഞങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ഫുഡ്ഡ് ഓർഡർ ചെയ്തിരുന്നു ആ ഒരു നാല് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതിലൊരു വിലാസത്തിലേക്കത് മാറ്റം വരുത്തണം കാരണം ഞങ്ങൾ തെറ്റായിട്ടാണ് അഡ്രസ്സ് തന്നത് അതായത് ഞങ്ങൾ ഞങ്ങളുടെ വീട് മാത്തൂരാണ് പക്ഷെ ഞങ്ങളിപ്പോളുള്ളത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ മാത്തൂര് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതൊന്ന് ചേയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അതെ ഞങ്ങളിപ്പോൾ ആ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് മാത്തൂര് മാത്തൂരാണ് പ്ലെയ്സ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത് അതൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അതെ ഇവിടുന്നൊരു മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഓ ശരി